എൻ്റെ അനിയൻ്റെ പതിനെട്ടാമത്തെ പിറന്നാള് ഞങ്ങള് നല്ല ഗ്രാൻറ്റായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചു എൻ്റെ ഫ്രണ്ട്സിനേയും അവൻ്റെ ഫ്രണ്ട്സിനേയും അമ്മേടെ അച്ഛൻറ്റെയുക്കെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു ഏകദേശം ഒരു അമ്പത് ആൾക്കാരോളം വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് പുറത്ത് നിന്നൊരു ഫുഡ് കൊടുക്കാതെ ഞങ്ങള് തന്നെ ഉണ്ടാക്കി ഫുഡ് കൊടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു അപ്പം ഞാനും അമ്മയും കൂടെ ഞങ്ങള് ബിരിയാണി വച്ചാലോ എന്ന്ള്ള പ്ലാന് അപ്പം ഞാനും അമ്മയും കൂടെ നമുക്കെന്നാൽ ഒരുമിച്ച് ചെയ്യാം അമ്പത് പേർക്ക് പറ്റോന്നറിയത്തില്ലായിരുന്നു എന്നാലും ഞങ്ങളുടേതായ രീതിയില് ബിരിയാണി ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു അതിനുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ മേടിച്ചു റൈസും തൈര് പപ്പടം അച്ചാറെല്ലാം റെഡിയാക്കാം അച്ചാറൊക്കെ തലേ ദിവസം ഇട്ട് വെച്ചു പിന്നെ തൈര് പപ്പടം എല്ലാം രാവിലെ തന്നെ സെറ്റാക്കി ബിരിയാണി അമ്മയും ഞാനും കൂടെ രണ്ടും കൂടെ റെഡി ആക്കി ഒരു സൈഡീന്ന് ചിക്കൻ്റെ പരിപാടികളും ബിരിയാണിയൊക്കെ പെട്ടന്ന് തന്നെ ശരിയാക്കി പിന്നവര് വന്നു എല്ലാവരും ഒരു നല്ല പോലെ നല്ല രീതി ഞങ്ങൾക്ക് അവർക്ക് ഫുഡ് സെർവ് ചെയ്യാൻ പറ്റി അവര് വരുമ്പത്തേക്കിനും എല്ലാം റെഡിയായിരുന്നു കേക്ക് കട്ടിങ്ങ് ഉണ്ടായിരുന്നു കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് പയ്യെ നല്ല രീതിയിലുള്ള അനുഭവം തന്നെ ആയിരുന്നു കാരണം എല്ലാരും വന്നു ഒരുപാട് നല്ല ഓർമ്മകളൊണ്ടായിരുന്നു എല്ലാം ഇപ്പം നമ്മള് ഫുഡ് കൊടുത്തപ്പം ഞങ്ങക്ക് ഒരുപാട് കാരണം അത് എല്ലാവരും വന്നപ്പം എല്ലാർക്കും തികയുമോ എന്നൊരു സംശയമായിരുന്നു അപ്പം നല്ല രീതിയിലത് ചെയ്യാൻ പറ്റി അത് പൊതുവെ എല്ലാരും നല്ലതായിരുന്നു ഓരോ അഭിപ്രായം പറയുകയും ചെയ്തപ്പോൾ ഒരുപാട് ഹാപ്പിനെസ്സ് തോന്നി